ആ മൂകുന്നിമലയുടെ അടിവാരത്താണ് നമ്മൾ താമസിക്കുന്നത് നാമ ജലക്ഷാമം അധികം നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിലും ഉണ്ടായ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് കനാലും കുളങ്ങളും മഴക്കുഴികളും ഒക്കെ നിർമ്മിച്ച് ഇടാറുണ്ട് കാരണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പരിസരത്ത് എല്ലാ വീടുകളിലെയും മഴക്കുഴി എടുത്തിട്ടിട്ടുണ്ട് പിന്നെ കനാൽ വലിച്ചു വെക്കാറുണ്ട് എന്നാലും ചില സാഹചര്യങ്ങളിൽ കനാൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടികിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അതും ഒരു നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് നമ്മൾ അതിനാൽ നമുക്കിപ്പോൾ അധികം ജലക്ഷാമം ഇല്ലാത്ത ഒരവസ്ഥയാണ്